എനിക്ക് ഇപ്പം അമേരിക്കയിലൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമാണ് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ നമ്മുടെ രീതി പോലെ അല്ല നമുക്ക് അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇപ്പം നമ്മുടെ അതായത് ഇപ്പം പഠനത്തിൽ ആണെങ്കിലും എല്ലാരും മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നല്ല ക്യാഷ് ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളി സെറ്റിൽ ആയിട്ട് ജീവിക്കാൻ പറ്റും ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനയ്യായിരം ആ ആ റേഞ്ച് അല്ലാണ്ട് അതിൽ കൂടുതൽ കിട്ടില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പ്രശ്നമാണ് അപ്പം നല്ല രീതിയിൽ ഉള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് സാലറിയും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ അമേരിക്ക അതേപോലുള്ള കാനഡ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഒക്കെ പോയാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള സാലറി കാര്യങ്ങൾ ഒക്കെ കിട്ടുക അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമേരിക്ക ആണ് അമേരിക്ക ആയതുകൊണ്ട് പിന്നെ അവിടുത്തെ കൾച്ചർ ഒക്കെ നല്ല രീതിയിൽ ഉള്ള കൾച്ചർ ആണ് നമുക്ക് ഇവിടെ ഉള്ള പോലെ സ്ട്രിക്ട് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം അവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉള്ള വണ്ടികളും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അമേരിക്ക ആണ്